ചരിത്ര പ്രസിദ്ധമായ ഒത്തിരി കാര്യങ്ങള് നടക്കുന്നൊരു നാടാണ് ഞങ്ങളുടേത് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി കൊട്ടാരങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള കോട്ടകളും എല്ലാമുണ്ട് നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി രാജവംശം അങ്ങനെ പല രാജവംശത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പണ്ട് രാജഭരണമായിരുന്ന കാലഘട്ടത്ത് ഒത്തിരി രാജാക്കന്മാരും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ രാജ്യ രാജ്യപ്രദേശങ്ങളിലെല്ലാം തന്നെ രാജാക്കന്മാർ തമസിച്ചിരുന്ന കൊട്ടാരങ്ങളും അവരുടേതായിട്ടുള്ള കോട്ടകളും എല്ലാമുണ്ടായിരുന്നു കോട്ടകളെന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്ക് ഒത്തിരി യുദ്ധങ്ങളും രാജ്യവംശങ്ങൾ തമ്മിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവര് താമസിക്കുന്ന കൊട്ടാരങ്ങൾ ഇന്നെല്ലാം അതൊരു കാഴ്ച വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് ജനാധിപത്യം നമ്മുടെ നാട്ടിൽ വന്നോ അന്ന് മുതൽ രാജ്യഭരണ അവസാനിക്കുകയും ആ രാജ്യം ക ഭരണത്തിലുണ്ടായിരുന്ന കോട്ടകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിനെ നല്ലൊരു രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവന്തപരത്തുള്ള രാജ രാജ് രാജ കോട്ടയും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നാണ് അവിടെയല്ലാം അവിടെന്നെ സൂക്ഷിച്ചിരുന്ന രാജാവിൻറ്റെ വസ്തുക്കളും അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എല്ലാ വസ്തുക്കളും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെല്ലാം നമുക്കൊരു കാഴ്ച വസ്തുായിട്ട് അവര് ഒരുക്കിയിട്ടുമുണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവരതെല്ലാം ഒരുക്കിയിട്ടുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്നതുമാണ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാർ അവരുടെ നാട്ടിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് പറയണ അവര് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അവര് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ അല്ലാതെ മറ്റുള്ള വെള്ളി സ്വർണ്ണം ചെമ്പ് അങ്ങനെ വളരെ വില കൂടിയ നോ ഇതിലുള്ള ദ പാത്രങ്ങളൊക്കെ ആയിരുന്നു അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ പോലത്തെ ഒര് വാഹന സൗകര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അന്നവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല്ലക്ക് എന്ന് പറയപ്പെടുന്ന അതായത് മറ്റുള്ളവർ ചുമന്ന് കൊണ്ട് പോകുന്ന പല്ലക്ക് എന്ന് പറയുന്ന വാഹനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോട്ട കോട്ടകളെന്ന് പറയുമ്പോൾ ഇ തിരുവനന്തപുരം പ്രദേശത്ത് തന്നെ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ട അങ്ങനെ ഒത്തിരി കോട്ടകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവരുടെ കോട്ട എന്ന് പറയുന്നത് യുദ്ധകാലത്തിൽ ഇവർക്ക് പടയാളികൾക്ക് ഒളിച്ച് താമസിക്കുവാനും മറ്റ് രാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റ് പടയാളികൾ യുദ്ധത്തിനായിട്ട് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനുവായിട്ടുള്ള കോട്ടകളെല്ലാം ഒത്തിരി ഉണ്ട് അതെല്ലാം ഇന്ന് നമ്മൾ അത്രയും ഭംഗിയോടും അത്രയും കരുതലോടും കൂടെ നോക്കി പോകുന്നു ഇനി വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ അതിന് ശേഷം വന്ന തലമുറയ്ക്ക് ഇതെല്ലാം അറിയുവാനും കാണുവാനും വേണ്ടി ഇന്നും നമ്മളതെല്ലാം നിലനിർത്തി പോരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് കരുതുന്നു അന്നിതെല്ലാം നശിച്ച് പോയിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറക്കിത് കാണുവാനോ അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്നുള്ളത് വളരെ വ വെറും പുസ്തകത്തിൽ നിന്ന് മാത്രം വായിച്ച് മനസ്സിലാക്കേണ്ടി വരുവായിരുന്നു എന്നാൽ അതിന് വിപരീതമായി നമുക്കിതെല്ലാം കാണുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പഴും രാജകാലത്തെ അല്ലെങ്കിൽ രാജ്യ ഭരണത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മള് പുസ്തകങ്ങൾ വായിച്ചൊരറിവ് മാത്രമെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവര് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രീതികളെല്ലാം അവർ അവിടെ കുറിച്ച് വെക്കുകയും പണ്ട് നമ്മള് ഉപയോഗിച്ചിരുന്ന ശിലകളും എല്ലാം അവിടെ ഇപ്പഴും നിലനിർത്തി പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കാരണ കർണവന്മാർ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ച് വന്നിരുന്നത് എന്നതതിനുള്ളന് ഒരു ഉത്തമ തെളിവാണ് ഇതെല്ലാം അപ്പം നമ്മള് എത്രയും മൂല്യത്തോടുകൂടി കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഈ രാജവംശം അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പഴും രാ ആ ഒരു തലമുറയിലുള്ള ആൾക്കാരികൾ ആൾക്കാർ ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളൊരു ജനാധിപത്യ ഒരു അ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിനത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ കൂടിയും നമ്മളാ നിലനിന്നിരുന്ന അന്നത്തെ ഒരു സമൂഹത്തെ നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് കാണുവാനും അതെല്ലാം അറിയുവാനും വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്